നമ്മുടെ വീടുകളില് വളര്ത്തണ മൃഗങ്ങളിൽനിന്നും വളർത്തുമൃഗങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണമായിട്ട് പശു കോഴി ആട് എരുമ അങ്ങനെ ഒരുപാട് മൃഗങ്ങളില് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ കോഴിയാണെങ്കിൽ കോഴി മുട്ട വരും അതേമാതിരി പശു പാൽ തരും എരുമ പാൽ തരും ആട് പാൽ തരും പശുവിന്റെ കാര്യമാണെങ്കിൽ തന്നെ പശുവിന് നമുക്ക് പാ ചാണകം തരും ചാണകം കൊണ്ട് നമുക്ക് ഒരുപാട് വരുമാന സ്രോതസ്സ് കൃഷിക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മുട്ട നമ്മൾ മുട്ട നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വില തരും അതുപോലെ തന്നെ ആടിന് പാൽ പാലിനൊക്കെ നല്ല പ്രോട്ടീന് ആണ് ആടിന്റെ ഇതൊക്ക ഇതിനൊക്കെ നല്ല പൈസ കിട്ടും പിന്നെ പശുക്കൾടെ കാര്യം പറയാണെങ്കില് വെച്ചൂര് പശു അങ്ങനെ ഒരുപാട് ജേഴ്സി പശു ആരോഗ്യഗുണമുള്ള പശുക്കലുണ്ട് അവരില് നിന്നും അവരുടെ പാലിന് ഒക്കെ അത്രയും ഗുണവും ഗുണ നല്ല രീതിയില് നമുക്ക് വരുമാനം ഉണ്ടാക്കാന് പറ്റും അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ട് ഒരു പിന്നെ അതുപോലെ തന്നെ അവരുടെ പാലുല്പ്പന്നങ്ങളില് നിന്നും നമുക്ക് നെയ്യ് എടുക്കാം മോര് തൈര് ഐസ്ക്രീമ് വരെ ഉണ്ടാക്കാം വെണ്ണ നമുക്ക് ഒരുപാട് വരുമാനം കിട്ടുന്ന വഴികളുണ്ട് നമ്മുടെ മൃഗങ്ങളില് നിന്ന് അത്രയും ഒരു ഉപകാരപ്പെട്ട വളര്ത്തു മൃഗങ്ങൾ വേറെ വേറെയില്ല നമ്മുടെ ആ ഈ നാട്ടിൽ പിന്നെ നമ്മുടെ കൃഷികള്ക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കഴിങ്ങ് തെങ്ങ് ഒരുപാട് കൃഷിക്ക് കാര്ഷിക ആവശ്യങ്ങള് ഉള്ള ഒരുപാട് ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും മേലില്ലാം നമുക്ക് ചാണകവും കോഴികളുടെ വേസ്റ്റും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കോഴി കോഴിക്കാട്ടം അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം അതുവഴി നമുക്ക് ഒരു വരുമാനം നല്ലരീതിയില് ഉണ്ടാക്കാം മുട്ട ഉപയോഗിച്ച് മുട്ടത്തോട് തോട് ഉപയോഗിച്ച് നമുക്ക് കൃഷിക്കിടാം കൃഷിയില് നിന്നും ഒരു വരുമാനം കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്